എന്റെ പ്രദേശത്തെ ഗതാഗത സൗകര്യം ഏറെക്കൊറെ സ്ഥലങ്ങളിലെയൊക്കെ ഗതാഗതം വളരെ നല്ല ഗതാഗതമാണ് പോകുന്ന സമയത്ത് അധികം റോഡുകളൊന്നും വളരെ മോശമായ രീതിയില് ഇതുവരെ കാണപ്പെട്ടിട്ടില്ല പിന്നേയും വളരെ ചെറിയ നമ്മുടെ തീരദേശ മേഖലകളിലുള്ള കുറച്ച് റോഡുകളില് മാത്രമെ അത്രയും പ്രയാസങ്ങള് നേരിട്ടട്ടുള്ളു അവിടെ കാലങ്ങളായിറ്റ് കാലങ്ങള്ക്ക് മുമ്പുണ്ടായിട്ടുള്ള റോഡുകളായത് കൊണ്ട്തന്നെ പൊട്ടും പൊടികളും ധാരാളം കാണപ്പെടുന്നുണ്ട് അത്കൊണ്ട്തന്നെ അവിടെ ആ റൂട്ടിലൂടെ ബസ്സുകള് പോവുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരിടാറുണ്ട് അല്ലാതെ സിറ്റി മേഖലകള് പോലു സിറ്റി ഭാഗങ്ങളില് പോവുന്ന സമയത്ത് അത്തരത്തിലുള്ളൊര് പ്രയാസം നേരിട്ടില്ലെങ്കിലും നേരെ മറിച്ച് അ ട്രാഫിക് ബ്ലോക്കുകളും ധാരാളം കാണുന്ന് കാണ് കാണപ്പെടാറുണ്ട് ചില സ്ഥലങ്ങളിലെ സിഗ്നലുകളും മറ്റും സ്ഥാപിക്കാത്തതിനാല് അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാണുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ റോഡുകളിലൊക്കെ പൊട്ടും പൊടിയും ഉണ്ടാവുന്നത് കാരണം ബസ്സുകള് പോവുമ്പോൾ അധികം സമയം പിടിക്കുകയും ബ ബസ്സുകള്ക്ക് പകരം മറ്റുള്ള രീതിയിൽ പ്രയാസങ്ങള് നേരിടേണ്ടി വരുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് സിറ്റി ഭാഗങ്ങളിലുണ്ടാവുകയില്ലെങ്കിലും ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങള് സിറ്റി ഭാഗങ്ങളില് ധാരാളം കാണപ്പെടുന്നുണ്ട് ഗതാഗതം മൊത്തത്തില് പറയാന്നുണ്ടെങ്കിൽ ഏറെക്കുറെ വളരെ നല്ല ഗതാഗത സൗകര്യങ്ങളൊക്കെ ഉള്ളൊര് നാടാണെങ്കിലും ചില ഭാഗങ്ങളിൽ ഇപ്പഴും ഗതാഗത സൗകര്യം വളരെയേറെ മോശപ്പെട്ട രീതിയില് കാണപ്പെടുന്നുണ്ട്